രാജ്യത്തെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള പോഷക ആഹാരക്കുറവ് പരിഹരിക്കുന്നതിനുവേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമാൺ ഇതുകൊണ്ട് രാജ്യത്തെ ഉടനീളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നു എന്നതാണ് അവര് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഇത് രാജ്യത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഒന്നു മുതൽ എട്ടുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതുമൂലം ഗുണമുണ്ടാകുന്നത് ഈ ഒരു പദ്ധതികൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുള്ള പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ പറ്റുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്